തീർച്ചയായും പെട്രോളിൻ്റെ അമിതമായിട്ടുള്ള വിലക്കയറ്റം കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാടു ജനങ്ങള് അവരുടെ ജീവിതത്തെ ഇത് അഫക്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർ ദിവസേന രണ്ടു തരം ബൈക്ക് ഉപയോഗിക്കുന്നവരാണ് ഒന്ന് കേവലം ആനന്ദത്തിനു മാത്രം ബൈക്കുകൾ കൊണ്ടു പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നവരുണ്ട് പക്ഷേ ചില ജനങ്ങള് തങ്ങളുടെ ദിവസേന ഉള്ള ജീവിത മാർഗ്ഗത്തിന് വേണ്ടീട്ട് ബൈക്കുകൾ കൊണ്ടായിരിക്കും ജോലിക്കു പോകുന്നത് അതുപോലെയുള്ള സാധാരണക്കാർക്ക് ഈ അമിതമായിട്ടുള്ള പെട്രോളിൻ്റെ വിലവർദ്ധനവ് അവർക്ക് ഒരുപാടത് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം അവർക്കു തുച്ഛമായ ശമ്പളമായിരിക്കും ഒരുപക്ഷേ ജോലിയിൽ നിന്നും കിട്ടുന്നത് അപ്പോൾ ദിവസേന ഈ ബൈക്ക് കൊണ്ടു പോകുമ്പോൾ ദിവസേന അതിൽ ഒരു ഒരു ഒരു വലിയ ഭാഗം അവർക്കു കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്നും പെട്രോളിനു വേണ്ടി അവര് ഉപയോഗിക്കേണ്ടിവരും അതുപോലെത്തന്നെ അമിതമായിട്ടുള്ള ഇന്ധനം ഇന്ധനം കൊണ്ടുള്ള ഉപയോഗം തീർച്ചയായിട്ടും പരിസ്ഥിതിക്ക് ഹാനീകരമാണ് കാരണം വാഹനത്തിനു രണ്ടുതരം ഇന്ധനങ്ങളാണ് ആവശ്യം ഡീസൽ പെട്രോള് ഇത് രണ്ടും ഭൂമിക്കുള്ളിൽനിന്ന് നമ്മള് വേർതിരിച്ചെടുക്കുന്ന ഫോസ്സിൽ ഇന്ധനങ്ങളാണ് ഇപ്പൊരു വാഹനം ഓടുന്ന സമയത്തു ഇന്ധനം എഞ്ചിനുള്ളിൽ കത്തുന്നു അത് വിവിധ ദോഷകരമായിട്ടുള്ള വാതകങ്ങൾ പുറപ്പെടിപ്പിക്കുന്നു കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് സൾഫർ ഓക്സിഡ് എന്നിവയാണ് വാഹനം പുറന്തള്ളുന്ന വാതകങ്ങൾ ഇത് പരിസ്ഥിതിക്കു വളരേ ഹാനീകരമാണ്